ചെറുപ്പം മുതലെ അങ്ങനെ ഓട്ടവും കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇതുവരെ എനിക്കൊരു മാരത്തോൺ ഗ്രൂപ്പായിട്ട് ഇല്ലെങ്കിൽ റണ്ണിംഗ് ക്ലബിൻ്റെ കൂടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇതേപോലെ ചെറുപ്പം മുതലേ ആഗ്രഹം ഉള്ളതാണ് മുതല് എവിടെങ്കിലും മാരത്തണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് മഞ്ചേരി ജില്ല സ്പോർട്സ് കൌൺസിലിൻ്റെ ഭാഗമായിട്ട് എന്തോ അടുത്തവർഷം മാരത്തോൺ എന്തോ നടക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് മഞ്ചേരി ഭാഗമായിട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ എവിടെ എങ്കിലും വേറെ എവിടെയേലും മാരത്തോണോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഉള്ളത് അനേഷിക്കുന്നുണ്ട് പല പ്രായത്തിലുള്ളവരുടെ ഒപ്പം ഗ്രൂപ്പായി ഇങ്ങനെ മാരത്തോണ് റണ്ണിങ്ങും കാര്യങ്ങളും നടത്തുമ്പോൾ അതു വേ വല്ലാത്തൊരു അനുഭവമായി കാരണം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി കാരണം അപ്പോൾ റണ്ണിങ്ങും ഇതും ഒക്കെ ഇനിയും നോക്കാനും ഭാവിയിൽ തുടരാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് റണ്ണിംഗ് കുറിച്ച് പറയുകയാണെങ്കിൽ ഞം മാരത്തോണ് നല്ലൊരു ഗ്രൂപ്പായിട്ട് ഓടുമ്പോൾ നല്ലൊരു താൽപര്യമുള്ളതാണ് കുറെ ദൂരം ഒപ്പം നല്ല ഇതില് ഫോക്കസായി കുറെ ദൂരം ഓടാനൊക്കെ പറ്റും